ഞാൻ ഇന്നാളത്തേൽ ഓൺലൈനിൽ ഒരു ബെഡ്ഷീറ്റ് വാങ്ങി നല്ല ബെഡ്ഷീറ്റ് നല്ല കളറും പൂക്കളെല്ലാം ആയിട്ടുള്ള നല്ല ബെഡ്ഷീറ്റ് എൻ്റെ ഫാമിലി കോട്ട് കട്ടിലിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിയത് ഞാൻ ഓൺലൈനിൽ ഇതുവരെ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് നല്ല അതിൻ്റെ ചിത്രം കണ്ടേനെ എനക്കിഷ്ടമായി അങ്ങനെയാണ് ഞാനത് വാങ്ങിയത് ആ എന്നിട്ട് ഞാൻ വാങ്ങിയേ വാങ്ങി വിരിക്കുന്നതിന് മുൻപേ തന്നെ ഞാനത് ഒലുമ്പി ഒളിമ്പിയിട്ട് നോക്കുമ്പം കളറ് കഴിഞ്ഞ് പൂക്കളെല്ലാം കളറ് എല്ലാം കഴിഞ്ഞേനു ആ പക്ഷേ ഞാൻ വിചാരിച്ച് അത് ആദ്യമായിട്ടായിട്ടായിരിക്കും ഇനി ഇനി അങ്ങനെ കളറ് കയ്യൂലായിരിക്കൂന്ന് ആ എന്നിട്ട് ഞാനത് വിരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് തിരുമ്പി തിരുമ്പൽ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് കളറ് കഴിഞ്ഞ് കളറ് ഡാർക്ക് കളറെല്ലാം ലൈറ്റ് കളറായി അങ്ങനെ ഇതിമെന്നു ചായം പോകുന്നു അത് മാത്രമല്ല പിന്നെ കിടക്കക്ക് എത്തുന്നില്ല ഇത് ചുരുങ്ങിപ്പോയി ബെഡ്ഷീറ്റ് മൊത്തത്തിൽ ചുരുങ്ങി പോയി ആ പിന്നെ അത് കിടക്കക്ക് കിടക്കേനെ സൈസിന് കണക്കാകാത്ത രീതിയിലാണ് ഉള്ളത് ഞാൻ ഒരിക്കലും മാങ്ങാത്തെയാണെന്ന് ഈ ഓൺലൈനിന്ന് ഞാൻ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് വാങ്ങി പോയതാണ് അപ്പം നോക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത് അതുമാത്രമല്ല പിന്നെ ഈ ബെഡ്ഷീറ്റ് പിന്നി പോകുന്ന് പിന്നെ ഒരു രണ്ടലക്ക് മൂന്നലക്ക് എല്ലാം ആകുമ്പളേക്ക് ഇത് പിന്നി പിന്നി പിന്നി കീറാൻ തുടങ്ങി നല്ലൊരു ബെഡ്ഷീറ്റ് ഇനി ഓൺലൈനിൽ വാങ്ങിയത് ഇത് പിന്നീട്ട് കീറാൻ തുടങ്ങി ഓരോ ഭാഗത്തായിട്ട് ഈ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാൽ തട്ടിയ ഭാഗത്ത് വരെ ഇത് കീറി പോകാൻ തുടങ്ങി ബെഡ്ഷീറ്റ് ആ ഞാൻ ഇവിടെ എല്ലാം തന്നെയാണ് ഷോപ്പിന്ന് വാങ്ങുന്നത് എല്ലാം നല്ല നല്ല ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടാവലുണ്ട് പക്ഷേ ഈ ബെഡ്ഷീറ്റ് വാങ്ങിയത് എനിക്ക് വളരെ നഷ്ടമാന്ന് ഞാൻ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങാത്തെയാണ് ഇതിൻ്റെ ഒരു രസം കണ്ടിട്ടാണ് വാങ്ങി പോയതാണ് നോക്കുമ്പോൾ ഇത് കളർ കഴിഞ്ഞത് മാത്രമല്ല ഇത് തുണി ചുരുങ്ങി പോവുകയും ചെയ്തു ആ ഇത് മൊത്തത്തിൽ എനിക്ക് ഇതൊരു ഒരു ഭയങ്കര നഷ്ടമായി പോയി